തമിഴ്നാട്ടിലാണ് അധികം ശില്പങ്ങൾ നിർമ്മിക്കുന്നത് അവിടെ ഇപ്പോഴും നല്ല നല്ല ശില്പികൾ ഇപ്പോഴും പണി സജീവമായി എടുക്കുന്നുണ്ട് അവിടെ അധികവും ദേവി വിഗ്രഹങ്ങള് ആന അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കളിമണ്ണിലും സിമന്റിലും എക്കെയാണ് അവര് തീർക്കുന്നത് നല്ലരീതിയില് അവര് ചെയ്ത് പെയിന്റും കാര്യങ്ങളും വയ്ക്കുമ്പോഴൊരു ജീവനുള്ളൊരു ശില്പമാണവര് ഉണ്ടാക്കിവരുന്നത് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരെ പഠിപ്പിക്കുന്നുമുണ്ട് ഓരോ കഴിവിനനുസരിച്ച് അവർ ചെയ്ത് കാണിച്ചും പറഞ്ഞും കൊടുത്ത് അവരതിനെക്കുറിച്ച് കൂടുതൽ അറിവ് പകർന്ന് കൊടുക്കുന്നുണ്ടവര് അങ്ങനെ കുറേ മേഖലയിൽ അവരങ്ങനെ പഠിപ്പിക്കണ ഇത് തന്നെയിണ്ടവിടെ ഞാൻ പോയിട്ട് എനിക്ക് എന്താ പറയുക എനിക്കതിനെക്കുറിച്ചൊരു ഒരു കഴിവില്ലാത്തതു കൊണ്ടാണ് എന്റൊരു ഫീൽഡ് അതല്ലാത്തതുകൊണ്ട് ഞാന് എനിക്കതിനെ കുറിച്ചധികം ചെയ്യാനോ ഒന്നു മനസ്സിലാക്കിയെടുക്കാനോ പറ്റില്ല പക്ഷേ അത് ചില ആൾക്കാർക്ക് അതിനെകുറിച്ച് നല്ല രീതിയില് വർക്ക് ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും എല്ലാം കഴിയും